ഇപ്പോൾ നമ്മള് ഒരു ചിത്രം വരക്കേണമെങ്കിൽ മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്താണോ വരക്കുന്നത് അതിനെക്കുറിച്ച് നമ്മള് നല്ലരീതീല് മനസ്സില് എപ്പൊഴും ഓർത്തിരിക്കേണ്ടൊരു ഘടകവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അത് മെയ്നായിട്ട് നമ്മള് ശ്രദ്ധിക്കണം കാരണമെന്തെന്ന് വെച് കഴിഞ്ഞാല് ആ സമയങ്ങളിലൊക്കെ നമ്മള് ഒരു ചിത്രം വരക്കുവാണെങ്കില് അതിൻ്റെ ബോർഡറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കുക പിന്നെ അതിന് നമ്മളിപ്പമൊരു മനുഷ്യൻ്റെ രൂപമാണ് വരയ്ക്കുന്നതെങ്കില് അതിൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക കണ്ണെവിടെയാണ് മൂക്കെവിടെയാണ് അങ്ങനത്തകാര്യങ്ങളൊക്കെ നമ്മള് മെയ്നായിട്ട് അടയാളപ്പെടുത്തുക അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ചിത്രം പൂർണ്ണമായിട്ടുള്ള രീതിയില് നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് നമുക്ക് വേണമെങ്കില് ഓൺലൈനായിട്ട് വേണമെങ്കില് വരക്കാം ഓൺലൈനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കമ്പ്യൂട്ടറിലൊക്കെ വേണമെങ്കിൽ വരക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതെന്ന് അപ്പം അത് നല്ല രീതിയില് നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതെന്ന് ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെയാണെങ്കില് നമ്മള് മെയ്നായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ചിത്രം വരയ്ക്കുക ഒരു ഒരു എന്താ പറയുക ഇപ്പം വരയ്ക്കാനുള്ളൊരു ആപ്പ്ളിക്കേഷനും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറില് ഉണ്ടാവും അതില് നമക്ക് വേണേൽ വരക്കാം പിന്നെ നമക്ക് പേപ്പറിലാണ് വരയ്ക്കാം പേപ്പറില് നമ്മള് മെയ്നായിട്ട് വരക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പെൻസില് കൊണ്ടക്കേണ് വരക്കാറ് അതൊക്കെ നല്ലരീതീല് ചെയ്യുവാണെങ്കി നമക്ക് നല്ലൊരു പിക്ചറ് നല്ലരീതീല് വരയ്ക്കാൻ വേണ്ടി സാധിക്കും